ഈ പ്രദേശത്ത് ഒരുപാട് മതപരമായ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ട് അതിൽ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന രണ്ട് ആഘോഷങ്ങള് ഒന്ന് തൃശ്ശൂര് പൂരവും പിന്നെ ഇവിടെ അടുത്തു നടന്നു വരുന്ന പിണ്ടി പെരുന്നാളുമാണ് സാധാരണ പെരുന്നാളില് നിന്ന് ഈ പിണ്ടി പെരുന്നാളിനെ വ്യത്യസ്തമാക്കുന്നതെന്താണെന്നു വെച്ചാല് ഈ പെരുന്നാളിന്റ തലേന്ന് ഒരു കുടു ഓരോ കുടുംബത്തിലെയും ആളുകളെല്ലാവരും കൂടി ചേര്ന്ന് ഇരുന്നു പല വര്ണ്ണങ്ങളിലുള്ള കൊടികള് ഉണ്ടാക്കുകയും പേപ്പറും കോലും ഒക്കെ വെച്ച് കൊടികളുണ്ടാക്കുകയും അതു വെച്ച് പിണ്ടി വാഴയുടെ പിണ്ടി എടുത്ത് അതിനെ അലങ്കരിച്ച് വീടുകളുടെ മുന്പില് പ്രദര്ശിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാമാണ് സാധാരണ പെരുന്നാളില് നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് പിന്നെ പെരുന്നാളിൻ്റെ അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുര്ബാനയും അതിനെ തുടര്ന്ന് പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും പിന്നെ തൃശ്ശൂര് പൂരത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ ലോകസ്ഥ ലോ ലോകപ്രശസ്തമായ ഒരു നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ള ഒരു ഉത്സവം തന്നെയാണ് ഈ തൃശ്ശൂര് പൂരം അന്ന് തൃശ്ശൂര് പൂരത്തിന്റെ അന്നേ ദിവസം തൃശ്ശൂരിന്റെ പല ഭാഗനിന്നുമുള്ള അമ്പലങ്ങളില് നിന്നുള്ള ദൈവങ്ങളെ ആനപ്പുറത്ത് എഴുന്നെള്ളിക്കുകയും തുടര്ന്നുള്ള പരിപാടികളുമാണ് ഉണ്ടാകുക രാവിലെ തന്നെ ദേ ദൈവങ്ങളുടെ എഴുന്നള്ളത്തായ മടത്തില് വരവ് പിന്നെ അതിനുശേഷം ഒരുപാട് കേരളത്തിന്റെ നാനാവിഭാഗത്തുമുള്ള മേള വാദ്യ ആൾ വിഭാഗ കൊട്ടുകാരും എല്ലാവരും ചേര്ന്നുള്ള ഇലഞ്ഞിത്തറമേളം എന്നുള്ള ചിങ്കാരി മേളവും എല്ലാമുണ്ട് അതിനുശേഷം വൈകുന്നേരം ലോകപ്രശസ്തമായ കുടമാറ്റം സ്വരാജ് റൗണ്ടില് വെച്ച് നടക്കും അപ്പോൾ അതിൽ തിരുവമ്പാടിയും വിഭാഗവും പാറമേക്കാവ് വിഭ വിഭാഗവും തമ്മിൽ മത്സരിച്ച് കുടകൾ മാറ്റി മാറ്റി പ്രദര്ശിപ്പിക്കും അപ്പം ഇതിനായി പലതരത്തിലുള്ള വര്ണ്ണക്കുടകളും പല പ്രത്യേകതകള് അടങ്ങുന്ന എല് ഇ ഡി തുടങ്ങിയ പല നിലകളുള്ള കുടകള് അങ്ങനെ പല വ്യത്യസ്ത തരത്തിലുള്ള കുടകള് വെച്ച് അവർ മത്സരിച്ച് കുടകള് മാറ്റും ഇതൊരു പ്രശസ്തമായ ഒരു ചടങ്ങാണ് അതിനുശേഷം വേറൊരു പൂരത്തിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാല് അതിന്റെ അടുത്ത ദിവസം ഉണ്ടാകുന്ന വലിയ വെടിക്കെട്ടാണ് പല വര്ണ്ണാഭമായ പല രീതിയിലുള്ള അമിട്ടുകളും പടക്കങ്ങളുമെല്ലാം പൊട്ടിക്കുന്ന ഒരു വെടിക്കെട്ടാണ് അപ്പോൾ ഇതെല്ലാമാണ് തൃശ്ശൂര് പൂരത്തിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂര് പൂരത്തിന്റെ സമയത്ത് ഒരു മൈതാനത്തിന്റെ ഒരു സൈഡില് ഒരു എക്സിബിഷന് ഉണ്ടാകാറുണ്ട് അപ്പോൾ രാജ്യത്തിന്റെ തന്നെ പല ഭാ ഭാഗങ്ങളില് നിന്നുമുള്ള കച്ചവടക്കാരും എല്ലാം വന്ന് നടത്തുന്ന ഒരു എക്സിബിഷന് ആണിത് അപ്പോൾ ഇതെല്ലാമാണ് തൃശ്ശൂര് പൂരത്തിന്റെ പ്രത്യേകതകള്